ഉപഭോക്താക്കളിൽ നിന്ന് എനിക്ക് പലപ്പോഴും നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തയ്യൽ മേഖലയിലോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയ എനിക്ക് ചെറുപ്പത്തിലേ തൊട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ തുണിത്തരങ്ങളൊക്കെ തയ്ക്കുന്നത് കാണുമ്പം ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഇത് എങ്ങനെയാണ് തയ്ക്കുന്നത് നല്ല കളറുള്ള തുണികളൊക്കെ കാണുമ്പം ഇത് നല്ല ഇത് തയ്ച്ചു ഇട്ടാൽ നല്ല രസമുണ്ടാരിക്കുമല്ലോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഈ ക്രോഷ്യോ വർക്കുകളൊക്കെ എൻ്റെ അമ്മ പണ്ട് തൊട്ടെ ചെയ്യുന്നതാണ് അപ്പം അതിനോടൊക്കെ കണ്ടു കണ്ടു ഒത്തിരി ഒരു താല്പര്യം തോന്നിയ ഒരാളാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഈ ഒരു തുന്നൽ രംഗത്തേക്ക് വന്നത് തന്നെ അതുപോലെ ഇപ്പം കൂട്ടുകാരടെ പിറന്നാൾ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും കസിൻസ് ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു തുന്നൽപ്പണിയെങ്കിലും ചെയ്തു ഒരു സാധനം സമ്മാനമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് പടം വരയ്ക്കുന്നത് കണ്ടു അതായത് മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയേ നോക്കി പടം വരയ്ക്കുന്ന കണ്ടു എൻ്റെ അമ്മയാണ് എനിയ്ക്ക് ആ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അത് അതുപോലെ തന്നെ സ്കൂളിലെ അദ്ധ്യാപകരാണെങ്കിലും എൻ്റെ ഒരു കഴിവിനെ തിരിച്ചറിഞ്ഞായിരുന്നു അങ്ങനെയാണ് കൂടുതലായിട്ട് പടം വരയ്ക്കാനും എന്നെ പ്രോത്സാഹിപ്പിച്ചത് അങ്ങനെ പടം വരച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്കൂളിൽ നിന്ന് മത്സരത്തിന് കൊണ്ടു പോവാൻ വേണ്ടിയിട്ട് എമ്പ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവേ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് എന്നേ ഒരു ടീച്ചർ ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു പല രീതിയിലുള്ള സ്റ്റിച്ചുകൾ ഒത്തിരി വെറൈറ്റി രീതിയിലുള്ള സ്റ്റിച്ചുകൾ ഇടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ടീച്ചറാണ് എന്നെ ഒത്തിരി സഹായിച്ചത് ഇങ്ങനെ ഒരു രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തൂവാലയിലൊക്കെ എന്തെങ്കിലും ഇപ്പം ഒരു ചെറിയ ടൗവ്വല് പോലെ അങ്ങനെ നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പൂവിൻ്റെ പടമോ അങ്ങനെ എന്തെങ്കിലും നൂല് വച്ചു തുന്നാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ടൗവ്വലിലാണ് എൻ്റെ തുന്നൽ പണി തുടങ്ങിയത് അതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് ഉടുപ്പുകൾ തയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഒരു കുഞ്ഞി ഒരു ആദ്യ കുർബാനയുടെ മാമോദീസയ്ക്ക് വേണ്ടിയിട്ട് ആദ്യ കുർബാനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എൻ്റെ കസിൻസിന് വേണ്ടിയിട്ട് ഞാൻ ഉടുപ്പുകൾ തുന്നി കൊടുത്തിട്ടുണ്ട് അപ്പം ബന്ധുക്കളാണെങ്കിലും എൻ്റെ മാതപിതാക്കളാണെങ്കിലും എൻ്റെ കഴിവിൽ ഒരുപാട് എന്നേ സഹായിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന് മത്സത്തിന് പോകുമ്പോൾ എനിക്ക് സബ് ജില്ലാ തലത്തിൽ ജില്ലാ തലത്തിലൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര പ്രോത്സാഹനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കാമെന്ന് പറയുമ്പം ഒരു വാങ്ങിച്ച ഒരു സാധനം കൊടുക്കുന്നതിന് നമ്മൂക്ക് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കൈ കൊണ്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്കും ബന്ധുമിത്രാദികൾക്കും വസ്ത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ തുടങ്ങിയത് അതുപോലെ തന്നെ നമുക്ക് ഈ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഈ ഒരു രംഗത്തോട്ട് ഇറങ്ങിയപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് തരത്തിലുള്ള തുണിത്തരങ്ങളും നൂലുകളൊക്കെ നമുക്ക് ലഭ്യമാണ് അതും കുറഞ്ഞ വിലയ്ക്ക് ഒത്തിരി തുണിത്തരങ്ങളൊക്കെയുള്ള സ്ഥലത്ത് പോയി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് എൻ്റെ മാതപിതാക്കൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഒരു ഓൺലൈനിൽ ബ്രാൻ്റ് തുടങ്ങിയത് അപ്പം ഒരുപാട് പേര് എൻ്റെ ഞാൻ ഇങ്ങനെ യൂറ്റൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഞാൻ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന തുണിത്തരങ്ങളുടെ ഫോട്ടോസൊക്കെ ഇടാൻ തുടങ്ങി അപ്പം അവർക്ക് അത് കണ്ടപ്പോൾ തന്നേ കൊണ്ടാക്റ്റ് ചെയ്യാൻ തുടങ്ങി ഉടുപ്പ് ചെയ്തു തരാവോ ചുരിദാറിൽ വർക്ക് ചെയ്തു തരാമോ അങ്ങനെയൊക്കെ ചോദിച്ചു അങ്ങനെ ഞാൻ ചുരിദാറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ഉടുപ്പിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ആദ്യകുർബാനക്കൊക്കെ കുഞ്ഞിപ്പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടുപ്പുകൾ തുന്നാൻ തുടങ്ങി ആ ഉടുപ്പുകൾ കൂടുതലായിട്ട് നൂൽ വച്ചുള്ള വർക്കുകൾ ചെയ്യാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ക്രോഷ്യോ വർക്കുകൾ ചെയ്യുന്ന നമ്മൾ ചാരു കസേരയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സോഫയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ കർട്ടനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കർട്ടനുകൾ ഇങ്ങനെ സൈഡുകളിൽ തൊങ്ങൽ പോലെയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടീട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വണ്ടിക്ക് വേണ്ടിയിട്ട് കുഷ്യൻ വണ്ടിയുടെ പുറകിൽ ഇടാൻ വേണ്ടിയിട്ട് പില്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടു ബാക്കിയുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു എനിക്ക് ഇതുപോലെ ഒരെണ്ണം ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടും അതായത് കൈവച്ചു തന്നെ തലയാണകളൊക്കെ തുന്നി കൊടുത്തിട്ടുണ്ട് നമുക്ക് പല തരത്തിലുള്ള തുണിത്തരങ്ങൾ ലഭ്യമാണ് അതായത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് കുറച്ചു ഹാഡായിട്ട് ഉള്ളതുണ്ട് പല തരത്തിലുള്ള പല കളറിലുള്ള തുണിത്തരങ്ങൾ കിട്ടുമ്പം നമുക്ക് അത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇന്നത്തെ കാലത്ത് തുണിത്തരങ്ങൾ കൂടുതലായിട്ട് തുന്നി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഒരു റെഡിമേയ്ഡ് സാധനം മേടിക്കുക എന്നു പറയുമ്പം നമുക്ക് തയ്ക്കാനറിയാവുന്ന ഒരാളെ സംബന്ധിച്ചു ഭയങ്കര വില കൂടുതലായിരിക്കും അതേ സമയം നമ്മൾ കൈകൊണ്ട് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ വിലയിൽ തുണിത്തരങ്ങൾ എടുക്കാനും പറ്റും സ്വന്തമായിട്ട് തയ്ക്കുക ഒക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഒരുപാട് പേര് ഇങ്ങനെ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് തയ്ക്കാൻ പഠിച്ചത് അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ തയ്ക്കാൻ പഠിച്ചത് ചെറുതിലേ തൊട്ട് പടം വരയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമീയിരുന്നു എൻ്റെ അമ്മയ്ക്ക് പടം വരയ്ക്കുക ചിത്രപ്പണികൾ ചെയ്യുക തുണി തുന്നുക എന്നൊക്കെ പറയുന്ന ഒത്തിരി താൽപ്പര്യമുള്ള കാര്യമായിരുന്നു അങ്ങനെ അതിന് എന്നേ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുക എന്നു പറയുന്ന വളരെ വലിയ ഒരു കാര്യമാണ് നമ്മുടെ കഴിവിനെ തിരിച്ചറഞ്ഞു പ്രോത്സാഹിപ്പിച്ചതും അത് മാതാപിതാക്കളോടും അതുപോലെ തന്നെ അധ്യാപകരോടും എൻ്റെ ബന്ധുമിത്രാദികളോടൊക്കെ ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇന്നത്തേ കാലത്ത് എന്തെങ്കിലും ഒരു വിദ്യ പഠിച്ചിരിക്കുക എന്നു പറയുന്നത് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് തുണിത്തരങ്ങൾ എന്നു പറയുന്നത് അതൊരിക്കലും അതിൻ്റെ ഒരു ഇത് നഷ്ടപ്പെട്ടു പോകുന്നില്ല കാരണം തുണി എന്നു പറയുന്ന മനുഷ്യന് എന്നും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള തുണിത്തരങ്ങൾ ഇടാൻ വേണ്ടിയിട്ടെല്ലാം മനുഷ്യർ ആഗ്രഹിക്കുന്നവരാണ് അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള നമുക്ക് ഭയങ്കര ആകർഷണീയമായ തുണിത്തരങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നല്ല രീതിയിൽ പല വ്യത്യസ്തമായ രീതിയിലൊക്കെ ഡ്രസ് മെറ്റീര്യൽസ് ആക്കി എട്ക്കാൻ പറ്റും അത് നമുക്ക് ഭയങ്കര സന്തോഷായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ സാരിയിലാണെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും സാരിയിൽ ഡിസൈനെന്ന് പറയുന്നത് പല രീതിയിൽ ഇപ്പം ഞാൻ ആണെങ്കിൾ അച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട് പല കളറിലുള്ള വർക്കുകൾ ചെയ്യാറുണ്ട് അതുപോലെതന്നെ തുണിയിൽ തുന്നിപ്പിടിപ്പിക്കുക എന്നു പറയുന്നത് നമുക്ക് മെഷീൻ വർക്കുകൾ ഒരുപാട് വരുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ

തുണിത്തരങ്ങൾ കൂടുതലായിട്ടും നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പറയുന്നത് വലിയ ഒരു കാര്യമാണ് അപ്പം നമുക്ക് കൂട്തലായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടുമ്പം നമുക്ക് ഇതിനോടുള്ള ഒരു ആത്മാർത്ഥത കൂടുന്നു നമുക്ക് ചെയ്യാനുള്ള താൽപ്പര്യം കൂടുന്നു അങ്ങനെയൊക്കെ ഒത്തിരി നമുക്ക് ഉപകാരപ്രദമാണ് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ജീവിത മാർഗ്ഗം എന്നു പറയുന്നതും മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് ഉപഭോക്താക്കളെ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ബ്രാൻറ്റിനെ തന്നെ വലുതാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് കൈ കൊണ്ട് നമ്മൾ ഇപ്പം അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഒരു പാർട്ടി പോലെ വച്ചപ്പം റിയൂണിയൻ പോലെ വച്ച സമയത്ത് എൻ്റെ ടീച്ചറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടൗവ്വലിൽ ടീച്ചറിൻ്റെ ചിത്രം തുന്നി കൊടുത്തായിരൂനു അപ്പം അവർക്ക് അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് അത് കണ്ടു കഴിയുമ്പം ടീച്ചറിന് ഒരുപാട് ഒരുപാട് സന്തോഷമായി അത് കാണുമ്പം നമുക്കും ഭയങ്കര സന്തോഷമുണ്ട് അതായത് വേറെ ഒരാൾക്ക് നമ്മൾ കാരണം ഒരു സന്തോഷം ഉണ്ടാവുമെന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു നമ്മുടെ കൈ കൊണ്ട് സ്വന്തവായിട്ട് ഒരു വസ്ത്രമോ അങ്ങനെ ഒക്കെ നിർമ്മിച്ചു തരാൻ നമ്മൾ ആ ആൾ നമ്മളെ ഒരിക്കലും മറക്കാനുള്ള സാധ്യത ഇല്ല അതായത് നമ്മളെ ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ആ ഇന്നയാൾ എനിക്ക് തുന്നി തന്നാതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കാം എന്നു പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് അപ്പം കൂടുതൽ ഉപഭോക്താക്കളെ നമുക്ക് നമ്മുടെ ബ്രാൻ്റിന് വേണ്ടിയിട്ട് ഉണ്ടാ ക്കി എടുക്കാം എന്നു പറയുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം തുണിത്തരങ്ങൾ ചുരിദാർ ഉടുപ്പ് പാവാട ടോപ്പ് നമ്മൾ പില്ലോയെ അതുപോലെ തന്നെ എന്തെങ്കിലും പാവ തുണി വച്ചു നമുക്ക് പാവകളെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഈ പറയുന്ന തുണി വച്ചു ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അത് തിരിച്ചറിയണം അതുപോലെ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾ ഉണ്ടെങ്കിലാണ് നമുക്ക് അത് ഒത്തിരി ഉപകാരപ്രദമാകുന്നത് ഇപ്പം ചെറുതിലേ എന്നേ ഒരാൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഈ കഴിവിനെ തിരിച്ചറിയാൻ ഒരു സാധ്യതയില്ല അപ്പം ഒരുപാട് എന്നേ സഹായിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് ഇന്നത്തേ കാലത്ത് പൈസ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നമുക്ക് സ്വന്തായിട്ട് ഒരു ഡ്രസ് മെറ്റീര്യൽസ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചു വലിയ ഒരു കാര്യമാണ് അപ്പം സ്വന്തമായിട്ട് നമ്മൾ തുണി ഉണ്ടാക്കുക എ ന്നു പറയുന്നതും നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് നമ്മൾ ഇപ്പം അതേ സമയം നമ്മൾ ഒരു റെഡിമെയിഡ് ഒരു സാധനം കണ്ടു നമുക്ക് ആ നമുക്ക് ഇഷ്ടപ്പെട്ട അതേ രീതിയിൽ കിട്ടണം എന്നില്ല അതേ സമയം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആശയങ്ങളെ നമുക്ക് അതിലേക്ക് ഏകീകരിച്ചു നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യവുമാണ് വസ്ത്രം മാത്രമല്ല നമുക്ക് തുണി വച്ചു നമുക്ക് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ബാഗുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും വസ്ത്രം എന്നു പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളാണ് ഇന്നത്തെ കാലത്ത് എല്ലാ മനുഷ്യരും ധരിക്കുന്നത് അപ്പം നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കാൻ അറിയാമെന്നുണ്ടങ്കിൽ ഒരുപാട് തുണിത്തരങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഒരു കഴിവിലാണ് അത് ഇരിക്കുന്നത് നമ്മുടെ അതുപോലെ നമുക്ക് സമയമുണ്ടായിരിക്കുക സാഹചര്യമുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്